അലൻ നല്ല കുട്ടിയാണ് കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് പഠിക്കുന്നുണ്ട് ക്ലാസ് നല്ല രീതിയിലായിട്ട് പോവുന്നു

ആ ഇപ്പോൾ ക്ലാസിൽ ഒരു കുഴപ്പമില്ല നല്ല കുട്ടിയായിട്ട് പഠിക്കുന്നുണ്ട് അവൻ നല്ല ആക്റ്റീവാണ് ഒരു കുഴപ്പവുമില്ല നല്ല മര്യാദയോടെ ഇരിക്കുന്ന ക്ലാസിൽ പഠിക്കുകയും ചെയ്യുന്നു പിള്ളേരല്ലേ ഓരോ ഇത് ഇങ്ങനെ വരുമ്പോൾ അവരും മുന്നോട്ട് മുന്നോട്ട് പോവുന്തോറും നന്നായിട്ട് വരും ഇപ്പോൾ ഒരു കംപ്ലയിൻ്റും ഇല്ല അലൻ ചെറിയാൻ നല്ലതായിട്ട് പോവുന്നു ആ വീട്ടിൽ വന്നിരുന്ന് പഠിക്കുകയൊക്കെ ചെയ്യില്ലേ ആ ഹാ ഇപ്പോൾ കുഴപ്പമില്ല നന്നായിട്ട് പഠിക്കുന്നുണ്ട് ആ ആ ആ ഇത്തവണ പ്രശ്നമൊന്നുമില്ല അവൻ്റെ ക്ലാസിൽ നന്നായിട്ട് പോവുന്നു അവൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട് ക്ലാസ് നല്ല ആക്റ്റീവ് ആണ്

ആ അത് ക്ലാസ് ഇപ്പം നല്ല പിള്ളേരോടൊക്കെ ആണെങ്കിലും നല്ല ദയനീയമായിട്ടുള്ള സംസാരവും നല്ല എല്ലാവർക്കും ഇഷ്ടമാണ് അതിൽ ഉപരി നന്നായിട്ട് പഠിക്കുന്നുമുണ്ട് അവരെ വീട്ടിൽ നിന്ന് വിളിച്ചപ്പോഴും ആ വിളിച്ചു

അവർ പറഞ്ഞു ഇത്തവണ മോന് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും നല്ല ഇതാണ് എന്നൊക്കെ അവർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു ഞാനും പറഞ്ഞു നന്നായിട്ട് പോവുന്നു ആ അവൻ നല്ല ഇതായിട്ട് പഠിക്കുന്നു എന്നൊക്കെ ഉണ്ട് ക്ലാസിൽ എല്ലാം നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് നോട്ടൊക്കെ നല്ല കംപ്ലീറ്റ് ആണ് അതൊക്കെ നമ്മൾ നല്ലതായിട്ട് പോവുന്നു

അതെ അതെ അതെ അതെ ആ ക്ലാസിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലാണ് എല്ലാം ഓക്കേ മിസ്സ്